ഈ മാധ്യമ പ്രവർത്തനം തൊഴിലാക്കാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണ് അത് ഒരു ജോലിയായി മാറുന്നു ആ ജോലിയായി മാറുന്നതിനോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിലേക്ക് പത്രങ്ങൾ മാധ്യമ പ്രവർത്തകനായ പത്രങ്ങൾ കൊണ്ടു പോയി കൊടുത്ത് ആ ജില്ലയിലോ അല്ലെങ്കിൽ ആടേയ് പിന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആ പ്രദേശത്ത് നന്നായിട്ട് അതായത് ഓരോ ദിവസവും നടക്കുന്ന അറിഞ്ഞിരിക്കേണ്ട വാർത്തൾ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയുവാൻ നല്ല കൃഷിയെ കുറിച്ചുള്ളതായിരിക്കും അപ്പം പത്രമാധ്യമങ്ങൾ ഏറ്റവും ഉപകാരമായി മാറുന്നു വായിച്ചു പോലെ തന്നെ വായനയിലൂടെ ഒത്തിരി അറിവുകൾ കിട്ടും കൃഷിയെ കുറിച്ചു മാധ്യമത്തിലൂടെ കിട്ടുന്ന അറിവുകൾ അതുപോലെ ഈ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ വായന ശീലത്തിലൂടെ ആവുമ്പോൾ അവർക്ക് വായനാശീലം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഏത് കാര്യങ്ങളും നന്നായിട്ട് വായിക്കുവാൻ ആ പ്രത്യേകിച്ചു മലയാളം വാക്കുകളൊക്കെ നന്നായിട്ട് വായിക്കുവാൻ വലിയ ഒരു കഴിവ് ഉണ്ടാവുമെന്നുള്ളത് വ്യക്തമാണ് അപ്പം പിന്നെ തുടർച്ചയായിട്ട് പേപ്പർ വായിക്കുമ്പോൾ ആണ് അത് ഓരോ

ആ വായിച്ചു അത് ഈ കാലഘട്ടം എന്നു പറയുമ്പം പ്രത്യേകിച്ചു പിന്നെ വായിക്കുവാൻ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്ക വായിച്ചു മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും സാധിക്കുന്നു അത് നല്ല ഒരു അവസരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ മറ്റു പുതിയ പുതിയ കൃഷികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ശാസ്ത്ര ലോകത്തെ കുറിച്ചു പൊഡ്സ്സ് കാര്യങ്ങളെ കുറിച്ചു അതിൻ്റെ അതായ രാജ്യം ഓരോ രാജ്യങ്ങൾ ഓരോ പ്രദേശങ്ങൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് ഇപ്പം കഴിയും പത്ര മാധ്യത്തിലൂടെയൊക്കെ അറിയാനായിട്ട് പ്രത്യേകിച്ചു പരിമിതി ഉള്ളതല്ല അപ്പം ഈ ഈ കാലഘട്ടത്തിലെ യുവാക്കൾ യുവതികളൊക്കെ വായിക്കേണ്ടതാണ് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കി ഇതൊക്കെ അവർ ഒരു നല്ല വായനാശീലം ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അറിവുണ്ടാവുമെന്നുള്ളത് വ്യക്തമാണ് ഇന്ന് ഇത് ഈ കാലഘട്ടത്തിൽ വായനയിൽ നിന്ന് മടിച്ചു നിൽക്കുന്നു കേൾവിയും കാഴ്ചയും മാത്രമായിട്ട് മാറി പോയിക്കൊണ്ടിരിക്കുന്നു അതല്ല വായനയിലൂടെ കിട്ടുമ്പോൾ അത് ശരിക്കും ചിന്താശക്തിയിലേക്ക് നമ്മൾ ഓർമ്മയിൽ നിന്ന് പോവുന്ന ഒരു കാര്യമാണെന്നുള്ളത് രണ്ട് വായന മാധ്യമത്തിൻ്റെ പത്രമാധ്യമത്തിൻ്റെ ഒരു നല്ല അത് മൊത്തം കാലാകാലങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പം മുതൽ അച്ചായമാരൊക്കെ പത്രം കിട്ടി മാധ്യമത്തിൽ വാർത്താ കാര്യങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കി അന്നത്തെ കാലത്ത് ഇന്നത്ത പോലെ കാഴ്ച കാണാനോ കേൾക്കുവാനൊന്നും സാധിക്കില്ല അങ്ങനെ കിട്ടുന്ന റേഡിയോയിലൂടെ ആയിരിക്കും ചെറിയ വാർത്തകൾ അറിയുന്നത് അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് പത്രമാധ്യമത്തിലൂടെ കൂടുതൽ അറിഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ഒരു കാര്യമായിരുന്നു ഈ കാലങ്ങളിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് മാധ്യമം എന്ന് പറയുമ്പോൾ അത് കാഴ്ചയായിട്ട് മാറി കൊണ്ടിരിക്കുന്നു അതെല്ലാം കാഴ്ച അല്ല അതിനോടൊപ്പം വായനയിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടു പോവാൻ കഴിയാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം അത് മറ്റുള്ളവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരും വായനാശീലത്തിലേക്ക് ഒരു വീട്ടിൽ രണ്ട് പേരെങ്കിലും പത്രം വായിക്കാൻ ഉണ്ടെങ്കിൽ നല്ല പുതിയ വാർത്തകളൊക്കെ അറിഞ്ഞു കൊണ്ടിരിക്കുക ആണെങ്കിൽ ഇത്തിരി കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കാൻ സാധിക്കും അത്പോലെ തന്നെ കൃഷിയെ കുറിച്ചൊക്കെ പത്രത്തിൽ നന്നായിട്ട് വാർത്തകൾ കൊടുക്കാറുണ്ട് കൃഷി ഓരോ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത് കാലാവസ്ഥയുടെ അനുസരിച്ചുള്ള ഇന്ന ഇന്ന കാലഘട്ടങ്ങളിൽ കൃഷി ഇറക്കി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആ പറയാറുണ്ട് അതിലൂടെയൊക്കെ അത്രയും അറിവുകൾ കിട്ടുമെന്നുള്ളത് വ്യക്തമാണ് നല്ല മാധ്യമം നല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നല്ല ഒരു ഉയർച്ചയുടെ മേഖലയാണെന്നുള്ളത് വ്യക്തമാണ് ഇനി വരും കാലമുള്ള കുഞ്ഞുങ്ങൾ നന്നായിട്ട് പത്രമാധ്യമങ്ങൾ മേടിച്ചു വായിച്ചു നന്നായിട്ട് തന്നെയാണ് അത് ഒപ്പം കൂടുതൽ അറിവോ സംസാരത്തേക്കാളും കൂടുതൽ വായനയിലൂടെ ഒത്തിരി അറിവുകൾ കിട്ടുമെന്നുള്ളത് വ്യക്തമാണ് നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാനുണ്ട്